ഇപ്പം ഇഷ്ട കായിക ഇനത്തിൽ മെയിൻ ആയിട്ട് വെല്ലുവിളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും നമുക്ക് അതായത് മെയിൻ ആയിട്ടുള്ളൊരു ഒരു ഗ്രൌൻഡ് ഉണ്ടാവില്ല ചിലപ്പം ചിലപ്പോൾ സാമ്പത്തിക ശേഷി ഉണ്ടാവില്ല ചിലപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര്ക്ക് നല്ലവണ്ണം കളിക്കാനാക്കെ അറിയാമായിരിക്കും പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരിത് ഉണ്ടാവില്ല മടിയായിരിക്കും ചിലർ കളിക്കാന് അറിഞ്ഞിട്ടും അതായത് ഇവിടെ ഒരു ഗ്രൌൻഡിൽ ഒതുങ്ങിപ്പോയി അതായത് വലിയ വലിയ സ്ഥലത്തൊക്കെ പോവേണ്ട കളിക്കാന് പോവേണ്ട ആള്ക്കാആർ ഒരു ഗ്രൗൻഡിൽ മാത്രം ഒതുങ്ങി പോവുന്ന ആള്ക്കാർ ഇഷ്ടംപോലെ ഉണ്ട് ഒരുപാട് പേർ പിന്നെ അതേപോലെ ഗേള്സ് ഒരുപാട് പേർ അതായത് കളിക്കാനൊക്കെ നല്ലവണ്ണം അറിയും പിന്നെ അവരെ വീട്ടിൽ പൊതുവേ വിടില്ല പതിനെട്ട് വയസ്സ് ആവുമ്പോഴത്തേക്കും അവരെ കെട്ടിച്ചു വിടും